ആ മേഡം വരൂ ആ വരു വരു ഏത് ഫോണാണ് വേണ്ടത് ആ ലേയ്റ്റസ്റ്റായിട്ടുള്ള ഒരുപാട് കമ്പനീടെ ഫോൺസ് നമ്മുടെ കയ്യില് അവൈലബിളാണ് ഏതാ നോക്കണത് ആൻഡ്രോയിഡാണോ അതോ ഐഫോണാണോ ആൻഡ്രോയിഡ് മതിയല്ലെ ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ബഡ്ജറ്റൊക്കെ എങ്ങനെയാണ് ഓക്കെ ഇരു ഓക്കെ ഇരുപത്തഞ്ചിനു അത്യാവശ്യം നല്ല മൊബൈൽസുണ്ട് അപ്പോൾ വിവോ ആണെങ്കിലും അതേപോലെ എൽ ജി പിന്നേ ഷവോമി റിയൽമി ഓപ്പോ അങ്ങനെ ഒരുപാട് അവൈലബിളുണ്ട് ഏതാണ് ഏതെങ്കിലും നോക്കണൊണ്ടോ സ്പെസിഫിക്കായിട്ട് ഫോണ് ആ ഓക്കെ അല്ലെൽ റിയൽമില് ഒരുപാട് നല്ല ഫീച്ചേഴ്സുള്ള ഫോണുകളുണ്ട് റിയൽമി ഇലവൺ പ്രൊ തന്നെ അത് ഒരു ഇരുപത്തൊന്നുരൂപ സംതിങ് വരുന്നുണ്ട് നല്ല ഒരു ഫോണാണ് നൂറ്റിയഞ്ച് മെഗാപിക്സൽ ക്യാമറ വരുന്നുണ്ട് അതേപോലെ എട്ട് ജി ബി റാമാണ് ആ റോമും ആ ഫൈജിയാണ് ഇപ്പഴത്തെ ഈ പതിനഞ്ച് പത്തായിരത്തിന് മുകളിലുള്ള ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സെഗ്മെൻറ്റ് ഫോണുകളും ഫൈജി ഫോണാണ് ഓക്കെ നല്ല പെർഫോമൻസായിരിക്കും അതേപോലെ സ്പീഡാണെങ്കിലും എല്ലാം നല്ല സ്മൂത്തായിരിക്കും ആ വാറൻറ്റി ഒര് വർഷം മാനുഫാക്ച്ചറിങ് വാറൻറ്റി കിട്ടും അത് കംപ്ളെ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുക അല്ല അങ്ങനെ നമ്മുടേതായ മിസ്റ്റേക്കില് എന്തേലും സംഭവിച്ചു പറഞ്ഞാൽ നമുക്ക് വാറൻറ്റി കിട്ടില്ല മാനുഫാക്ച്ചറിങായിട്ടെന്തു വേറെന്തെങ്കിലും സിസ്റ്റത്തിനെന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതിൽ നമുക്ക് മാനുഫാക്ച്ചറിങ് വാറൻറ്റി കിട്ടും നമുക്ക് അത് ശരിയാക്കിത്തരാൻ പറ്റും ഇപ്പം ഒരു വർഷത്തിനുള്ളിൽ എന്ത് പറ്റുകയാണെങ്കിലും ഇല്ലില്ല ഹാങ്ങൊന്നും ആകില്ല എല്ലാ ഫോണും ഒരു മൂന്നാലുവർഷം സ്മൂത്തായിട്ട് തന്നെ പോവും പിന്നെ നമ്മുടെ യുസിനൻസരിച്ചിട്ടായിരിക്കും ഈ ഹാങും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മള് ഒരുപാട് ഗെയിമിംഗ് ഒക്കെ ഒരുപാട് ഇപ്പോൾ ആ ഫോണിന് താങ്ങാൻപറ്റാത്ത ഗെയിമ് കളിക്കുമ്പഴും അതേപോലെ അങ്ങനെ വരുമ്പോഴൊക്കെയാണ് ഹാങാവുകയുള്ളു എന്നാലും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും അപ്പ്ലിക്കേഷനും കാര്യമില്ല കാരണം റാമ് എട്ട് ജി ബി റാമൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എല്ലാ ആ വർക്കിങാണ് അത്യാവശ്യം എല്ലാ ആപ്ലിക്കേഷനും വർക്കിങാണ് പിന്നെ ഒരുപാട് നേരം ഈ ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മണിക്കൂർ കണ്ടിന്യുവസ് ആയിട്ട് ഫോണിതാകുമ്പഴേ ഹീറ്റാവും അങ്ങനെയുള്ള അതിപ്പം ഏത് ഫോണാണെങ്കിലും ആ ഹീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ആ ഹീറ്റാകും അത് വർക്കിങ് ആയതുകൊണ്ട് ഹീറ്റാവും അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലെംസ് അല്ല അതൊന്നും എല്ലാത്തിനും ഉള്ളതാണ് അതിപ്പം ഐഫോണെടുത്താലും ഏത് എത്ര വിലകൂടിയെടുത്താലും എലക്ട്രോണിക്ക് സാധങ്ങളല്ലെ അതൊക്കെ നമ്മള് യൂസ് ചെയ്യുന്നത് അനുസരിച്ച് ഹീറ്റും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസെയ്യും അപ്പോൾ ഇതുനോക്കണൊ ഇനി ഇപ്പോൾ ഇതിൻ്റെ തന്നെ വിവോൻ്റെ ഉണ്ട് ഒന്ന് ഐക്യുന്നാണ് ഫോണിൻ്റെ പേര് അതും അത്യാവശ്യം ഐ ക്യു ഐ ക്യു ഐ ക്യു ഓ ഓ ആ അത് തന്നെ പുതിയതാണ് വിവോൻ്റെ സബ്ബാണത് ബ്രാൻഡ് ഓ ആ ഷവോമിടെ റെഡ്മി ഒക്കെ പറയണ പോലെ അതെ റിയൽമി ഓപ്പോൻ്റെ ആണല്ലോ അതേപോലെ ഇത് വിവോൻ്റെയാണ് അതും ആ അതും അത്യാവശ്യം നല്ല റേ പെർഫോമൻസുള്ള ഫോണാണ് ഇരുപത്തിയൊന്ന് സംതിങ് ഇതും ഇരുപത്തൊന്നാണ് പിന്നെ നമുക്ക് സ്പെഷ്യൽ ഓഫറൊക്കെ ആയിട്ടൊരു ഇരു പതിനെട്ട് പത്തൊമ്പതിന് കിട്ടും ഏത് ഈ റിയൽമി പറഞ്ഞത് ഈ ഇലവൻ പ്രൊ ഓഫറുണ്ട് ഓഫറുണ്ട് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാല്ലെ നോക്കാല്ലെ ഇതെങ്ങനെയാ ഇപ്പോൾ നിങ്ങള് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇ എം ഐ വല്ലതുവാണോ അതോ റെഡി ക്യാഷ് തരാനാണോ ഇ എം ഐ ആണെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്കുള്ളതുണ്ട് പന്ത്രണ്ട് മസത്തിനുമുണ്ട് ആറു മാസമുണ്ട് നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് തരാം അല്ലെങ്കിൽ റെഡി ക്യാഷാണെങ്കിൽ അങ്ങനെ അപ്പം ഇത് നിങ്ങളുടെ യൂസിന് ആ ഇ എം ഐ ഇട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇഎംഐയുടെ ഒരു ഫോമുണ്ട് ആ ഫോമും കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്ത് പറഞ്ഞാൽ അവിടുന്ന് ഇ എം ഐ സെറ്റാക്കിത്തരാം അവിടെ ഫോമ് കൊടുത്താൽ മതി പർച്ചെസിങ് അവിടെ ചെയ്യാം ഓക്കെ ശരി ഓക്കെ റെഡി